ശരീരഭാരം കൂട്ടാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് പൊതുവേ നാട്ടിൽ കൊടുക്കുന്ന ചികിത്സകൾ ചികിത്സകൾ എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായിട്ട് ആധുനിക കാലഘട്ടങ്ങളിലൊക്കെ ചെയ്തിരുന്ന ച് ചികിത്സകൾ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ആഹാരത്തിലെ രീതികളും മറ്റ് കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ആ രീതികളിലൂടെ തന്നെ അവർക്ക് എന്താണ് അവരുടെ ശരീരഭാരം മറ്റ് കാര്യങ്ങൾ കുറയ്ക്കുന്നതിനുള്ള മുഖ്യമായിട്ടുള്ള കാര്യങ്ങൾ മറ്റ് ക സംഭവങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഒരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ ഇന്ന് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് ഇവരുടെ ശരീരഭാരം കൂട്ടാനായിട്ട് പൊതുവായിട്ട് ചെയ്യുന്നത് പ് പൊതുവായിട്ട് ഇതിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഈ മെലിഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർക്ക് ഈ ശരീരഭാരം വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക് മറ്റ് കാര്യങ്ങളിലേക്ക് വരുന്നത് അപ്പോൾ ഇതിനായിട്ട് അവർ ആദ്യമായിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് തന്നെ കുറയ്ക്കുക ഈ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കും തോറും തന്നെ നമുക്ക് തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കും അതിന് കാരണമെന്ന് പറയുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ പഞ്ചസാര അടിഞ്ഞ് കൂടുന്ന സമയത്ത് എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അതൊരു അമിതമായിട്ടുള്ള ഫാറ്റ് ആയിട്ട് നിലകൊള്ളും ഇതാണ് പ്രധാനമായിട്ടുള്ള അവസ്ഥ അപ്പോൾ അതിന് പ്രധ പ്രധാനമായിട്ടും ചോറ് നമ്മൾ ഇപ്പോൾ കഴി ഇവിടെ പൊതുവായിട്ടും മലയാളികൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് ചോറാണ് അപ്പോൾ ഭാരം കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്താണ് ഈ ചോറ് കാര്യങ്ങൾ കുറയ്ക്കുക ചോറ് കാര്യങ്ങൾ കുറച്ചതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് ശരീരത്തിന് ഉപയോഗപ്രദമായിട്ടുള്ള ഭക്ഷണസാഹചര്യങ്ങളും മറ്റ് കാര്യങ്ങളും ഉപയോഗിക്കുക അതായത് നമ്മൾ ഈ പ്രോട്ടീൻ നിറഞ്ഞ ആഹാരപദാർത്ഥങ്ങളും മറ്റ് കാര്യങ്ങളും കടല പരിപ്പ് അത്പോലുള്ള ഈ ശരീരത്തിന് തടിക്കുവാനായിട്ട് ഫലം ചെയ്യുന്ന കാര്യങ്ങൾ പിന്നെ നമ്മൾ ഈ ജ്യൂസ് ഐറ്റംസ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒക്കെ പ്രധാനമായിട്ടും ഉപയോഗി ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്ക് തടി കൂട്ടുന്നതിന് കാരണമാവും പിന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമയത്തിന് ആഹാരം കഴിക്കുക ഈ ആഹാരം പൊതുവായിട്ട് ഇപ്പം ഒരു മെലിഞ്ഞ ഒരു വ്യക്തി കഴിക്കുന്ന ആഹാരത്തിൻ്റെ തോത് എത്രയാണോ അതിനേക്കാളും കുറച്ച് ആഹാരം കഴിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം തടി വയ്ക്കുന്നതിലേക്ക് നയിക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് മത്സ്യ മാംസാദികൾ ഈ മത്സ്യ മാംസാദികൾ കഴിക്കുന്നതോടുകൂടിതന്നെ നമുക്ക് തടി അമിതമായുള്ള വണ്ണം വയ്ക്കുന്നതിലേക്ക് നയിക്കും അപ്പം മത്സ്യ മാംസാദികൾ ധാരാളമായിട്ട് കഴിക്കുക ഇത് കഴിക്കുന്നതോടുകൂടി തന്നെ നമ്മുടെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുന്നതിനും സന്തുഷ്ടമാകുന്നതിനും മുഖ്യ പങ്ക് വഹിക്കും അപ്പം അത് വഴിയൊക്കെ ആയിട്ട് നമ്മുടെ എന്താണ് ആരോഗ്യത്തിന് പ്രധാനമായിട്ട് മത്സ്യമെന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം നമ്മൾ പൊതുവായിട്ട് നമ്മുടെ നിരത്തിൽ കിട്ടുന്ന മത്സ്യങ്ങൾ ഒക്കെ തന്നെ കഴിച്ചാൽ ആരോഗ്യത്തിൻ്റെ വണ്ണം കൂട്ടുന്നതിന് കാരണമാവും പിന്നെ അതിലുപരിയായിട്ട് മാംസം മാംസം എന്ന് പറയുന്നത് നമ്മൾ പശുവിനെ പശുവല്ല സോറി മാംസം എന്ന് പറയുന്ന നമ്മൾ ഈ പൊതുവായിട്ട് വരുന്ന ഈ പോത്തിൻ്റെ മാംസം അതുപോലെ തന്നെ ഈ ഈ കോഴിയുടെ മാംസം ഇതൊക്കെ നമുക്ക് എന്താണ് ആരോഗ്യത്തിന് തടി വർദ്ധിക്കുന്നതിന് പ്രധാനമായിട്ടും നമ്മുടെ എല്ലുറപ്പ് കിട്ടുന്നതിനും ഈ ആട്ടിറച്ചി ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് കൂടുതലായിട്ട് തടിയും മറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നതിന് കാരണമാവും പിന്നെ അത് മാത്രമല്ല ഇതിനെയൊക്കെയായിട്ട് ഉപരി ശരിയായ ഒറക്കം ശരിയായ വ്യായാമം അതുപോലെതന്നെ ശരിയായ ഭക്ഷണം ഈ ക്രമത്തിലൂടെ തന്നെയാണ് നമ്മുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തി തടി കൂട്ടുന്നതിന് സു സുപ്രധാനപരമായിട്ടുള്ള പങ്ക് വഹിക്കുള്ളൂ പിന്നെ ഈ നാട്ടിലൊക്കെ നമ്മൾ കാണുന്ന പലതരത്തിലുള്ള ചികിത്സകൾ പിന്നെ അലോപ്പതി ചികിത്സ ഈ ചികിത്സകളിലൂടത്തന്നെ വണ്ണം നമുക്ക് കൂടുന്നതിനും തടിക്കുന്നതിനും കാരണമാവും പിന്നെ അത് മാത്രമല്ല നമ്മളാദ്യം മെലിഞ്ഞ മെലിഞ്ഞ സാഹചര്യങ്ങൾക്ക് കാരണമായത് എന്താണ് ആ സാഹചര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നതോടുകൂടിതന്നെ ഒരു സുപ്രധാനപരമായിട്ടുള്ള പങ്ക് ഇതിലേക്ക് വഹിക്കും പിന്നെ ഈ പങ്ക് നമ്മളെടുത്ത് കളയുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഏകാഗ്രതയോട് കൂടി ഇരിക്കുക നമ്മൾ ഭക്ഷണം ഒക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ കിടന്നുറങ്ങാതെ കുറച്ച് ഏകാഗ്രതയോടുകൂടിതന്നെ ഇരുന്ന് കഴിഞ്ഞാൽ അത് തടി ഫലപ്രദമാവും ഈ തടി കൂടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം തടി ഓവർ ആകാതിരിക്കാൻ നോക്കണം നമ്മൾ അവിടെ നമ്മൾ വലിപ്പം അതുപോലെതന്നെ തടി ഇതെല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയ്ക്ക് അനുസരിച്ച് സ്വാധീനം ചെലുത്തുമ്പോഴേ അത് വളരെ മനോഹരമായിട്ട് വരികയുള്ളൂ അപ്പം ആ രീതിക്ക് അനുസരിച്ച് കേന്ദ്രീകരിച്ച് കഴിഞ്ഞാൽ തന്നെ ശരീരത്തിൻ്റെ ഭാരം കൂടുന്നതിന് കാരണമാവും ഭാരം അമിതമാകാതെ നോക്കണം ഭാരം അമിതമാകാതെ നോക്കണം എന്ന് പറയുമ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ വറുത്തതും കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ആഹാര പദാർത്ഥങ്ങളെ ഒരു പരിധിവരെയും കഴിക്കുക അതിൽ കൂടുതൽ കഴിക്കാൻ പാടില്ല കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ നോർമലി ഒരാൾക്ക് വണ്ണം വയ്ക്കുന്നതിനേക്കാളും വണ്ണം കൂടും അപ്പം അത് പലതരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാവും അപ്പോൾ പൊതുവായിട്ട് ഇതൊക്കെയാണ് ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ മറ്റ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ തടി വയ്ക്കുന്നതിനായിട്ട് നമ്മുടെ ഈ നാട്ടിലൊക്കെ കാണുന്ന പൊതുവായിട്ടുള്ള അവസ്ഥയാണ് ഈ തൈര് നമ്മളെ ചൊ നമ്മൾ ഫുഡ് ആഹാരം കഴിക്കുന്ന സമയത്ത് തൈര് കൂട്ടി കഴിക്കുക തൈര് കൂട്ടി കഴിച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തിന് കുറച്ചുകൂടെ നല്ല തണുപ്പ് കിട്ടും അതുകൂടാതെ തന്നെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ് ഈ ആരോഗ്യം കുറച്ചുകൂടെ മെച്ചപ്പെടുന്നതിന് കാരണമാവും പിന്നെ മറ്റൊരു പദാർത്ഥമാണ് പാൽ പാൽ കഴിക്കുന്നതോടുകൂടി പ്രോട്ടീൻ്റെ ഒരളവാണ് പാലിൽ ഇ പ്രോട്ടീൻ മറ്റ് കാൽസ്യം മറ്റ് കാര്യങ്ങളൊക്കെ അടങ്ങിയ അപ്പം പ്രോട്ടീൻ്റെ അളവ് കൂടുന്നതിന് ഈ പാൽ പ്രധാനമായിട്ടും സ സഹായിക്കും പ്രധാന പങ്ക് വഹിക്കുന്നു പിന്നെ അതുകൂടാതെ തന്നെ മുട്ട മുട്ട നമ്മൾ പൊതുവെ നോർമലി ഒരു ദിവസം ഒരു മുട്ടയൊക്കെ കഴിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ ഈ പൊതുവെ തടി വയ്ക്കണമെങ്കിൽ ഈ മുട്ട കഴിച്ച് കഴിഞ്ഞാൽ കാര്യങ്ങൾ ചെയ്യാം പിന്നെ നമ്മൾ ഈ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഹാരപദാർത്ഥങ്ങൾ ഒക്കെ കഴിച്ച് കൂട്ടിയ തടി നമുക്ക് എന്താണ് അത് കൃത്യമായിട്ട് വർക്ക് ഔട്ടും മറ്റ് കാര്യങ്ങളും ചെയ്യുന്നതോടുകൂടി ആ അമിതവണ്ണം ആ രീതിയിൽ നമുക്ക് വല്ലാത്ത വണ്ണം വണ്ണം ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അവരുടെ കൃത്യമായിട്ടുള്ള വണ്ണം നിലനിർത്തുന്നതിനും മറ്റ് കാര്യങ്ങൾ വഹിക്കുന്നതിനും സുപ്രധാനപരമായിട്ടുള്ള പങ്ക് വഹിക്കും അത് മാത്രമല്ല ഈ വണ്ണം നിലനിർത്തി കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ഈ നല്ല രീതിയിൽ തന്നെയുള്ള ഈ ഭക്ഷണ വ്യവസ്ഥിതി കൃത്യമായിട്ട് രീതിയിൽ ഫോ ഫോക്കസ് ഫോളോ ചെയ്യുക പിന്നെ ചില ആളുകൾ ഒക്കെ അവർക്കെന്താണ് ചികിത്സാപരമായിട്ടുള്ള രീതികളിലൂടെ ഇപ്പം നാട്ടിൽ ചികിത്സകൾ അലോപ്പതി ചികിത്സ ഈ ചികിത്സകളിലൂടെ തന്നെ ഇതിനുള്ള ഉത്തരങ്ങൾ കണ്ടെത്തും ഇത് വണ്ണം കൂടുന്നതിന് വേണ്ടിയിട്ടുള്ള കഷായങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഈ ആയുർവേദത്തിലുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പരീക്ഷിക്കുന്നത് കൊണ്ട് ചിലപ്പം ഒരു പരിധി വരെ അങ്ങനെയും നമ്മുടെ നാട്ടിലൊക്കെ പൊതുവായിട്ടുള്ള ആളുകൾ വണ്ണം കൂടി വരുന്ന ഒരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഈ അലോപ്പതി പരമായിട്ടുള്ള ചികിത്സകളിലൂടെയും അങ്ങനെ അവർക്ക് ഉന്നമതി ലഭിച്ചിട്ടുണ്ട് പിന്നെ ഈ പ്രകൃതി പ്രകൃതി ചികിത്സകൾ ഉണ്ട് ഈ പ്രകൃതി ചികിത്സകളിലൂടെ ഒക്കെ അവരുടെ വണ്ണം ഒരു പരിധി വരെ കൂട്ടുന്നതിനും അല്ലെങ്കിൽ അവരുടെ വണ്ണം ഒരു പരിധി വരെ എത്രത്തോളം മെച്ചപ്പെടുത്താം അത്രത്തോളം മെച്ചപ്പെടുത്തുന്ന സാഹചര്യങ്ങളിലേക്ക് നീങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഈ വണ്ണത്തെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു ഘടകം ആണ് ഈ വെള്ളത്തിൻ്റെ അളവ് കുറയും അപ്പം ഈ വെള്ളം കൃത്യമായിട്ട് കുടിക്കുന്നത് വഴിയെട്ടത്താണ് ഈ ശരീരത്തിൻ്റെ ഭാരം എത്രത്തോളം കൂട്ടാൻ പറ്റുന്നുണ്ട് അത്രത്തോളം കൂട്ടാനും അവരുടെ ഭാരങ്ങൾക്കനുസരിച്ച് പോകുന്നതിനും മുഖ്യമായിട്ടുള്ള പങ്കും മറ്റു കാര്യങ്ങളും വഹിക്കും അപ്പം അതിലൂടെ തന്നെ അവരുടെ ഭാരത്തെ നിയന്ത്രിക്കാനും മറ്റ് കാര്യങ്ങളിലേക്ക് പോകുന്നതിനൊക്കെ ഒരു മെയിൻ ആയിട്ടൊരു പങ്ക് വഹിക്കുന്നു പിന്നെ അത് മാത്രമല്ല നമ്മൾ കഴിക്കുന്ന ആഹാര അനുഷ്ഠാ മറ്റ് രീതികളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കാം അപ്പം ഇതൊക്കെ വഴിയായിട്ട് എന്താണ് നമ്മുടെ ശരീരഭാരം കൂട്ടുന്നതിന് പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു പിന്നെ ഈ ന ഞാൻ പറഞ്ഞത് പോലെ തന്നെ നാട്ടുവൈദ്യങ്ങൾ നാട്ടുവൈദ്യങ്ങളിൽ അടുത്തായിട്ട് വരുന്ന ഒരു കാര്യമാണ് വണ്ണം കൂടുന്നതിന് തേൻ പാലും തേനും പാലും സേവിക്കുക എന്ന് പറയും പണ്ടുള്ള ആളുകൾ അപ്പം ആ രീതികളിലൂടെ ചെയ്യും പിന്നെ ചെയ്യുന്നത് ഈ അമ്പലത്തിലെ നേദ്യച്ചോറ് ഈ നേദ്യച്ചോറ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ആരോഗ്യത്തെ കുറച്ചുകൂടെ തടി കൂട്ടുന്നതിന് മുഖ്യ പങ്ക് വഹിക്കും ഇതൊക്കെയാണ് പരമ്പരാഗതമായിട്ട് ആളുകൾ ചെയ്ത് കൊണ്ടിരിക്കുന്ന രീതികൾ ഈ രീതികളിലൂടെ ഒക്കെ അവരുടെ തടി മറ്റ് കാര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായിട്ട് പങ്ക് വഹിക്കുന്നു ഇത് കൂടാതെ തന്നെ ഈ നാട്ടുചികിത്സകളിൽ ഏറ്റവും മെയിൻ ആയിട്ട് വരുന്നൊരു പ്രധാനപ്പെട്ട ഒരു ചികിത്സയാണ് ഈ ഞാൻ പറഞ്ഞ് വന്നത് നമ്മുടെ ഈ ഈ ഭക്ഷണപദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഈ സത്തുക്കൾ ഒക്കെ സത്തുക്കൾ എടുത്തിട്ട് ആ സത്തുക്കൾ പാനം ചെയ്യുക ഈ സത്തുക്കൾ പാനം ചെയ്യുന്നത് വഴിയായിട്ട് അവർക്കെന്താണ് അവരുടെ വണ്ണത്തെ കൂട്ടുന്ന മുഖ്യ പങ്ക് വഹിക്കും ആ ഒരു കാര്യത്തിലേക്ക് നയിക്കും പിന്നെ പൊതുവായിട്ട് ആളുകൾ ചെയ്ത് കൊണ്ടിരുന്ന ഒരു പരമ്പരാഗതമായിട്ടുള്ള രീതികളിലേക്ക് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെതന്നെ ഉള്ളൊരു രീതിയാണ് തേൻ തേനിൻ്റെ ഒരളവ് തേൻ ഒക്കെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിനും വണ്ണം കൂടുന്നതിനും ഒക്കെ മുഖ്യ പങ്ക് വഹിക്കുന്നു അപ്പം ആ രീതിയിലൂടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ ശരീരത്തിൻ്റെ ഘടന എന്നന്നേക്കുമായുള്ള നിലനിൽപ്പിലേക്കും മറ്റ് കാര്യങ്ങളിലേക്കും ഒക്കെ അവർക്ക് പ്രധാനമായിട്ടും ഒരു പങ്ക് വഹിക്കുന്നു